ഇപ്പോൾ മത്സ്യബന്ധനത്തിന് ഒക്കെ പോകുന്നവർക്ക് കൂടുതലായിട്ടും കുടുംബത്തിലെ സ്ത്രീകള് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്നൊക്കെവെച്ചുകഴിഞ്ഞാൽ കൂടുതലും അവര് ചെയ്യുന്നതെന്നു പറഞ്ഞാൽ എന്താ വെച്ചാൽ കുടുംബത്തിലെ മത്സ്യബന്ധനത്തിന് പോവുന്നവർക്ക് വേണ്ടീട്ട് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കുക കുടുംബം നോക്കുക പിന്നെ ചില സ്ത്രീകൾ ഇവര് കടലില് പോയിട്ട് പിടിച്ചിട്ട് വരുന്ന മത്സ്യങ്ങളെ വേർതിരിച്ചെടുത്ത് കൊട്ടകളിലാക്കിയിട്ട് ഹാർബറിൽ കൊണ്ട് കൊടുക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അതവരുടെ ജീവിതമാർഗ്ഗമായിട്ടാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് കൂടുതലായിട്ടും നമ്മള് കണ്ടു വന്നിട്ടുള്ളത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നു ഇല്ല പിന്നെ ഉഒണക്ക മീനുകളൊക്കെ ഉണക്കി സൂക്ഷിക്കാനൊക്കെ വീടുകളിൽ ഉള്ള സ്ത്രീകളൊക്കെയാണ് കൂടുതലും സഹായിക്കുക അങ്ങനെ അത്തരത്തിലെ വീട്ടിലുള്ള പണികളും പിന്നെ ഭർത്താക്കന്മാർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാനും കുട്ടികളെ നോക്കാനും പിന്നെ ഞാൻ പറഞ്ഞ രീതിയില് മത്സ്യങ്ങള് വന്ന് കപ്പലിലൊക്കെ കൊണ്ട് വന്ന് ഇറക്കുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്ത് ഓരോ കൊട്ടകളിലൊക്കെ ആക്കി കൊടുക്കാനൊക്കെയാണ് കൂടുതല് സ്ത്രീകളെ മത്സ്യബന്ധനത്തിനൊക്കെയായിട്ട് ഉപയോഗിക്കുന്നത്